മീൻപിടുത്തത്തെകുറിച്ച് അറിയാത്തതെന്ന് പറഞ്ഞാൽ മീനെന്താണ് കേട് വരാത്തതെന്നെച്ചാൽ ഇത്രേം കാലം വെച്ചിട്ട് കേട് വരാത്തത് എന്തുകൊണ്ടാണെന്നാണ് അറിയേണ്ടത് പിന്നേ ഞാനിന്നൊരു മീൻ വാങ്ങി ആ മീനിൽ മുഴുവൻ ബ്ലീച്ചിങ് പൗഡറാണ് മണക്കുന്നത് അത് എന്ത്കൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല വിഷം ചേർത്തിട്ട് വരുന്ന മീനാണ് എത്രയൊ മാസങ്ങൾ കൂടി വരുന്ന മീനാണ് നമുക്ക് കിട്ടുന്നത് അത് ഇവിടെ എത്തുമ്പോൾ അവർ മരുന്നിട്ട് അങ്ങനെയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയാണ്ട് നമ്മൾ എല്ലാം വാങ്ങി നമ്മളത് ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മളറിയാണ്ടാണ് മീ മീൻ നല്ല രുചിയാന്ന് പറഞ്ഞ് വാങ്ങും നല്ല രുചിയൊന്നും ഉണ്ടാകൂല്ല വിഷം ചേർത്ത് ഉണ്ടാക്കുന്ന മീനാണ് അതാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്